ഇന്ത്യൻ തൊഴിൽ വിപണി വളരെ മോശമായ ഘട്ടങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെന്ന് വച്ചാൽ എല്ലാ യുവാക്കളും ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോവാണ് എന്ന് വച്ചാൽ ഇന്ത്യയുടെ പുറത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്യും അവിടെ സ്ഥിര താമസമാക്കാൻ നോക്കുകയാണ് അപ്പം അതു കാരണം ഇവിടെ ആരും ഇല്ല ഇവിടെ വയസ്സായവർ മാത്രാണുള്ളത് തൊഴിൽ ചെറുപ്പക്കാർ എല്ലാവരും ഇന്ത്യ വിടുമ്പോൾ ഓർ വേറെ വല്ല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇന്ത്യയിലുള്ള തൊഴിൽ സാധ്യതയും കുറയും അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് കിട്ടേണ്ട പൈസയും കുറയും അങ്ങനെ ഭയങ്കര മൊത്തത്തിലൊരു നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത് പിന്നെ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ വാർദ്ധക്യക്കാരുടെ എണ്ണം കൂടും അപ്പോൾ യുവാക്കളുടെ എണ്ണം കുറയുന്നതിന് അനുസരിച്ച് നമുക്ക് ഇവിടെ കുറേ രോഗങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അത് കാരണം മൊത്തത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലേയും ഇത് ബാധിക്കും എക്കണോമിക്ക് മേഖലയെ പൈസ എക്കണോമിക്ക് മേഖലയിൽ ആണത് കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത് ഈ മറ്റ് തൊഴിലുകളില്ലാത്തത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട വേറെ തൊഴിലുകളൊക്കെ നശിച്ച് പോകും മീൻസ് ഇല്ലാണ്ടാവും പിന്നെ ഇതുവഴി വേറെ ഉണ്ടാവുന്ന പ്രശ്നം എന്തെന്ന് വച്ചാൽ പിന്നെ വേറെ തൊഴിൽ വിപണി ഇടിയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വച്ചാൽ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ ഭയങ്കര മോശമായ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉൽപന്നങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ തൊഴിൽ മേഖലകളിലോ ഓർ ഇന്ത്യൻ വിപണിയിൽ കിട്ടാനില്ല എല്ലാം നമ്മൾ പുറത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലാണ് അപ്പം നല്ല സംഭവങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കുക ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു മെച്ചപ്പെട്ട വലിയ തൊഴിൽ വിപണി നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും പിന്നെ എന്താണ് സംഭവം എന്ന് വച്ചാൽ നമ്മൾ ഒരു തൊഴിൽ ചെയ്യുകയാണോ കണ്ട് പിടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കു ഒരാൾക്ക് ഇവിടൊ ഒരു തൊഴിൽ ലഭിക്കണമെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഇവിടെ തൊഴിൽ ലഭ്യത വളരെ കുറവാണ് ആർക്കും എല്ലാവർക്കും കിട്ടാൻ വേണ്ടി മൊത്തത്തിൽ തൊഴിലുകളോ ഒന്നുമല്ല പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നല്ല രീതിയിൽ ജന സംഖ്യ ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് പക്ഷേ അതിന് അനുസരിച്ചുള്ള തൊഴിലുകളോ ഒന്നും നമുക്ക് ഇന്ത്യയിലില്ല പിന്നെ കർഷകർ അങ്ങനത്തെ കുറേ വിഭാഗങ്ങൾക്കാരെ ഒക്കെ വളരെ ഏറെ ഒരു വേറെ രീതിയിലാണ് ഇവിടെ ഉള്ളൊരു കാണുന്നത് പിന്നെ മറ്റൊര് ഇത് എന്താണെന്ന് വച്ചാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളപ്പോഴും ചേട്ടൻ ഇപ്പോൾ അടുത്ത ഒരു വീട്ടിലെ ചേട്ടൻ ഇപ്പോൾ പോയി പുറത്തേക്ക് പോയി അപ്പോൾ വീട്ടിൽ ചേട്ടൻ്റെ വീട്ടിൽ ആരും ഇല്ല അപ്പം ആ വീടങ്ങനെ കെട്ടിപ്പൂട്ടി ഇരിക്കുകയാണ് അപ്പം ആ സ്ഥലത്തുള്ള എനർജി വേസ്റ്റ് എല്ലാം വേസ്റ്റാവുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള പല സംഭവങ്ങളും വെറുതെ വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കയാണ് ഈ ആൾക്കാർ വേറെ നാട്ടിലേക്കൊക്കെ പോയ് കൊണ്ടിരിക്കുന്നോണ്ട് അപ്പോൾ ഇന്ത്യൻ തൊഴിൽ വിപണിയുടെ അവസ്ഥ വളരെ മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്